പാചകത്തിനു മുൻപ് ഇപ്പം നമ്മൾ ഇപ്പം ബിരിയാണിയാണ് വയ്ക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ അരിഞ്ഞു വയ്ക്കും അതുപോലെ വെളുത്തുള്ളിയുടെ തോൽ പോക്കി അത് ചതച്ച് വയ്ക്കും അതുപോലെ ഇഞ്ചി ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി ചതച്ച് വയ്ക്കും തോൽ പോക്കീട്ട് പിന്നെ അതിൻ്റെ ബിരിയാണി മസാല കുറച്ച് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരംമസാല അതൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ അതുപോലെ എന്താണോ വെളിച്ചെണ്ണ ആണോ ഓയിൽ ആണോ നെയ്യ് ആണോ എന്താണോ ഉപയോഗിക്കുന്നത് അത് എടുത്ത് വയ്ക്കും പിന്നെ ബിരിയാണിയുടെ ചോറ് ആക്കാൻ വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പു കറിവേപ്പില അതുപോലെ ഏലക്ക ഇതൊക്കെ എടുത്ത് വയ്ക്കും നെയ്യ് എടുത്ത് വയ്ക്കും എന്നിട്ട് ഇങ്ങനെ ഉള്ള ചേരുവകളെല്ലാം ആദ്യമേ എടുത്ത് വച്ചിട്ട് ആണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങാറ് അതുപോലെ തന്നെ ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ കറിയൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ഇപ്പോൾ കറികളൊക്കെ ആക്കി വയ്ക്കും ഇപ്പോൾ പരിപ്പാണെങ്കിൽ പരിപ്പ് കറി ആക്കി വയ്ക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ മുളകുപൊടി ഉപ്പ് അതൊക്കെ എടുത്തു വയ്ക്കും ഇത്രയും ചേരുവകൾ ഇപ്പോൾ ഏതൊരു ഐറ്റം ഉണ്ടാക്കന്നു ഈ ഒരു ഐറ്റം ഈ ഒരു ചേരുവകൾ തന്നെയാണല്ലോ എല്ലാത്തിനും മാറ്റി മാറി മാറി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതു തന്നെയാണ് മെയിൻ ഐറ്റം പിന്നെ എന്തെങ്കിലും കറി അതിലൊക്കെ ആണെങ്കിൽ പച്ചക്കറി ഇട്ട് ഉള്ളി വെളുത്തുള്ളി തക്കാളി അതൊക്കെ അറിഞ്ഞ് വച്ച് അതും ചേർക്കും